ഒരു ബിസിനസ്സ് ആരംഭിക്കുവാനുള്ള പ്രധാന ചട്ടങ്ങളിലും നടപടികളിലും പെടുന്ന ആദ്യത്തെ ഭാഗമാണ് ബിസിനസ്സ് ആശയം നിർണ്ണയിക്കുക എന്നത്

നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മാർക്കറ്റിലുണ്ടാക്കുന്ന ആവശ്യങ്ങൾക്കനുസൃതമായി വ്യത്യസ്തമാവും ടാർഗറ്റ് ഓഡിയൻസ് ലൊക്കേഷൻ സ്കെയ്ലബിലിറ്റി എന്നിവ ചിന്തിക്കുക രണ്ടാമത്തേത് ബിസിനസ്സിൻ്റെ രൂപം തെരഞ്ഞെടുക്കുന്ന കാര്യമാണ് അതിൽ പ്രൊപ്രൈറ്റർഷിപ്പ് പാർട്ട്നർഷിപ്പ് എൽ എൽ പി അതായത് ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്നർഷിപ്പ് അതുപോലെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വൺ പേഴ്സൺ കമ്പനി തുടങ്ങിയവ വേണം മൂന്നാമത്തേത് രജിസ്ട്രേഷൻ പ്രക്രിയയാണ് നാലാമത്തേത് ലൈസൻസുകളും അനുമതികളും അതിൽ നമുക്ക് ഫുഡ് ലൈസൻസ് വേണം ട്രെയ്ഡ് ലൈസൻസ് വേണം പൊലൂഷൻ എന്നോസി ഫയർ സേഫ്റ്റി വേണം ലേബർ ലൈസൻസ് എന്നിവ ആവശ്യമായിട്ടുണ്ട് അടുത്തത് ബിസിനസ്സ് ബാങ്ക് അക്കൗണ്ട് തുറക്കുക എന്ന കാര്യമാണ് വ്യക്തിപരമായ അക്കൗണ്ടിൽ നിന്ന് വ്യത്യസ്തമായി നിക്ഷേപം ചെയ്യാനാണ് ബിസിനസ്സ് അക്കൗണ്ട് തുറക്കേണ്ടത് അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങും ടാക്സ് മാനേജ്മെന്റും അത്യാവശ്യമാണ് എല്ലാ വരുമാനവും ചെലവുകളും രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് കൃത്യമായ ടാക്സ് ഫൈലിങ്ങും നടത്തേണ്ടതുണ്ട്

ബിസിനസ്സ് തുടങ്ങുന്നതിനായി വലിയ മൂലധനം ആവശ്യമില്ല ഓരോ സംരംഭത്തിനും ആവശ്യമായ മൂലധനം വ്യത്യസ്തമാണ് അതുകൊണ്ടു വലിയ മൂലധനം എന്നതിനു പ്രസക്തിയില്ല